നമ്മൾ വീടിൻ്റെ തറ തൂത്തു വാരുന്നത് ചൂലുപയോഗിച്ചാണ് പിന്നെ തുടയ്ക്കുന്നത് മോപ്പുപയോഗിച്ചു ആണ് വീടിൻ്റെ തറ എപ്പോഴും വൃത്തിയായിരിക്കുന്നത് കൊണ്ടാണ് ചൂലുപയോഗിച്ച് തൂക്കുകയും മോപ്പുപയോഗിച്ച് തുടക്കുകയും ചെയ്യാറുണ്ട് ആഴ്ചയിലൊരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ടൈല് ഇട്ട ഒരു നമ്മുടെ വീട് ടൈല് ഇട്ടതാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ചാണകം ഉപയോഗിക്കാറില്ല അതിൻ്റെ ആരോഗ്യ വശങ്ങളെന്തെന്ന് അറിയത്തുല്ല നമുക്ക് ചാണകം ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ആരോഗ്യവശങ്ങൾ അറിയത്തില്ല നല്ലതായിരിക്കും നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല വീട് എപ്പോഴും തുത്തുവാരുകയും തുടക്കുകയും നമ്മൾ ചെയ്യാറുണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ സാധാരണ പോലെ തന്നെ ചൂലെടുത്ത് തൂക്കുവോം മോപ്പെടുത്ത് തുടക്കുവോം നമ്മൾ ടൈല് ഫ്ലോർ ക്ളീനറ് ഇട്ട് നമ്മൾ വൃത്തിയായി തന്നെയാണ് തുടച്ച് സൂക്ഷിക്കുന്നത് നമ്മുടെ വീട് അതുപോലെ തന്നെ നമുക്ക് എല്ലാം വീടിൻ്റെ മുറ്റമായാലൂം തൂത്തക്കെ വൃത്തിയാക്കിയാണ് ഇടുന്നത് നമ്മൾ ചാണകം തറയിൽ ഉപയോഗിക്കാറില്ല നമുക്ക് അതിൻ്റെ ആരോഗ്യവശങ്ങളും അറിയത്തു അങ്ങനെ വലുതായിട്ടൊന്നും വലുതായിട്ടൊന്നും അല്ല അതിനെക്കുറിച്ച് അറിയത്തില്ല